അത് എടത്വ പള്ളി പെരുന്നാൾ തമിഴന്മാരുടെ പെരുന്നാളാണ് എട്ടാം പണം വരെ തമിഴന്മാരൊക്കെ വന്ന് ഇതാകുന്നതാണ് അതു കഴിയുമ്പോഴേ ഉള്ളു നമ്മുടെ പെരുന്നാൾ അടിപൊളി പെരുന്നാളാണ് എല്ലാ മതക്കാരും ഒന്നു ചേരുന്നൊരു പെരുന്നാളാണ് എടത്വ പള്ളി പെരുന്നാൾ ജാതിമതഭേദങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും വന്ന് പള്ളി വന്ന് പള്ളിൽ വരികയും കുർബ്ബാന കൂടുകയും നൊവേനകൾ കൂടുകയും ചെയ്യുന്നു നമുക്ക് പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചാൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കോരി ചൊരിയുന്നുണ്ട് അന്യ അന്യ നാട്ടിൽ നിന്നും അന്യ ദേശത്തു നിന്നും ആൾക്കാർ എടത്വ പള്ളിൽ വന്നു ചേരാറുണ്ട് നമുക്ക് എടത്വ പള്ളിയിൽ വന്നു ചേരുന്നുണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ഒത്തിരിയും ഒത്തിരിയും ആൾക്കാർ ഒരു വർഷത്തെ സമ്പാദ്യമാണ് പുണ്യാളച്ചനു കൊണ്ടു കൊടുക്കുന്നത് എല്ലാം നമുക്കേത് ഏത് ഏത് അതായത് എന്തു സാധനം നമുക്ക് കാണാതെ പോയാൽ പുണ്യാളച്ചൻ്റെ അടുക്കൽ നിന്നു പ്രാർത്ഥിച്ച് അത് ഇത്ര ദിവസത്തിനുള്ളിൽ പുണ്യാളച്ചൻ നമുക്കത് കാണിച്ചു തരും പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കൈവിടാത്തൊരു ഇതാണ്